ഇരുപത്തി ഒമ്പത് ആറ് രണ്ടായിരത്തി ഒമ്പത് ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരം ആറ് അഞ്ച് രണ്ടായിരത്തി മൂന്ന് പത്ത് മൂന്ന് രണ്ടായിരത്തി ഒമ്പത് അഞ്ച് എട്ട് രണ്ടായിരത്തി ആറ്